ആ ചേട്ടാ നമസ്ക്കാരം ചേട്ടന് അറിഞ്ഞുകൂടെ ഏട്ടാ ഈ ഒരു സാഹചര്യത്തില് ഈ മാസ്ക്ക് വയ്ക്കാതെ ഒക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് താങ്കളൊരു ഡ്രൈവറല്ലേ ഒരുപാട് ആളുകള് യാത്ര ചെയ്യുന്നതാണ് താങ്കളുടെവാഹനത്തില് അതുകൊണ്ട് തന്നെ മാസ്ക്ക് വച്ച് കൃത്യമായൊരു പ്രക്കോഷനൊക്കെ എടുത്ത് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ചേട്ടനറിയാവുന്നതല്ലേ അപ്പം അത് കൊണ്ട് ദയവായിട്ട് ചേട്ടനാ മാസ്ക്കൊന്ന് ധരിക്കുക കാരണം ഈ ഒരു കാലഘട്ടത്തില് എന്തോരം പേരാണ് ചേട്ടൻ്റെ വാഹനത്തിൽ കയറുന്നത് യാത്ര ചെയ്യുന്നവരുണ്ട് അങ്ങനെ എത്രയോ പേരുണ്ട് അപ്പം അവരൊക്കെ ഒന്ന് സുരക്ഷിതരാക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കേണ്ട ചില പ്രാക്കോഷൻസ് നമ്മള് എടുത്തേ മതിയാവു അതുകൊണ്ട് ദയവായിട്ട് മാസ്ക്ക് ധരിച്ച് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തില് സഹകരിക്കണം അത് ചേട്ടൻ്റെ സുരക്ഷയ്ക്കും ഒപ്പം ഞങ്ങളുടെ സുരക്ഷയ്ക്കും കൂടീട്ടാണ് അപ്പോൾ അത് മറക്കരുത് പിന്നെ ഈ വാഹനമൊക്കെ ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്ക് ഈ അത്യാവശ്യം സാനിറ്റയ്സറൊക്കെ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് ഓരോ യാത്രക്കാര് കയറിക്കഴിയുമ്പോഴും ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേട്ടനെ പോലുള്ളവര് ഓരോരുത്തരും സ്വയം തീരുമാനിച്ചാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ ദയവായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക സീറ്റൊക്കെ നല്ല വൃത്തിയായിട്ട് ഇടുക അപ്പം ഈ ഒരു വാഹനം മുഴുവൻ അത് നല്ല നീറ്റായിട്ട് സൂക്ഷിക്കാനായിട്ട് ചേട്ടനൊന്ന് ശ്രമിക്ക് കാരണം സാഹചര്യം അതാണ് ഈ കാലഘട്ടം എന്ന് വെച്ചാൽ എത്രയോ പേരാണ് ഈ കോവിഡ് വന്ന് മരിക്കുന്നത് നമുക്കറിയാല്ലോ എത്രയോ വോളണ്ടിയേഴ്സ് ഇതിൻ്റെ പിന്നില് എത്രയോ ബോധവൽക്കരണങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ദയവായിട്ട് കൃത്യമായ രീതിയില് ചേട്ടനത് ഈ ഒരു സുരക്ഷ മാനദണ്ഡങ്ങളൊക്കെ ഒന്ന് പാലിച്ച് തന്നെ മുന്നോട്ട് പോവുക മാസ്ക്ക് കൃത്യമായിട്ട് വെക്കുക അതും നല്ല ഭംഗിയായിട്ട് തന്നെ വൃത്തിയായിട്ട് വെക്കുക ഓരോ ദിവസം മാസ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മാറ്റുക മാറ്റിയിട്ട് കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ച് കൊണ്ട് ചേട്ടൻ തന്നെ ഒരു മാതൃക ആയിട്ടുണ്ടങ്കില് ചേട്ടനെ പോലുള്ള ഒരുപാട് ഡ്രൈവർമാർക്ക് അത് അവരത് ഫോളോ ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ട് ചേട്ടനൊന്ന് ശ്രമിക്കുക കേട്ടോ